ഹലോ ആ മിനി ചേച്ചിയല്ലേ ചേച്ചി ഞാന് ഓരൂ കമ്പ്ലൈൻ്റ് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ അതേ നമ്മുടെ സൈറ്റില് വെള്ളവില്ല അതിപ്പോൾ കുറച്ച് ദിവസായിട്ടിങ്ങനെ തുടർന്ന് വരികയാണ് അല്ല മോട്ടൊർ ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ വെള്ളം അങ്ങനെ കിട്ടുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട് ആ ഹ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലെ പൈപ്പില് ലീക്ക് ഉണ്ടോ അത് അതും കൂടെ ഒന്ന് ശരിയാക്കണമായിരുന്നു

ആ ഹ ആ പിന്നെ നമുക്കേ ഇവിടെ ഈ വേയ്സ്സ്റ്റ് ഇടാനായിട്ട് സ്ഥലമൊന്ന് ഇല്ലായിരുന്നു നമുക്ക് വേസ്റ്റ് കളയാനും പിന്നെ എന്തേലും വേസ്റ്റ് കത്തിച്ച് കളയാനുള്ള സ്ഥലവില്ല ഫുഡ് വേസ്റ്റൊക്കെയാണെൽ അതും ഇടാനുള്ള സ്ഥലം എവിട ഇതൊന്നും ഒന്നും അതൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് അല്ല അത് നമുക്ക് ഇപ്പോൾ കൂടുതൽ വേസ്റ്റ് ഒക്കെ ആയിക്കഴിയുമ്പഴേ അതാ കൊണ്ടുവന്നിടാൻ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്കൊക്കെ ഒരൂ ബുദ്ധിമുട്ടാകുന്നുണ്ട് അതൊന്ന് നമ്മൾ എന്താ ചെയ്യണ്ടത് അതിനെന്തെലും പ്രത്യേകം വല്ല സജ്ജീകരണം ചെയ്യുമൊന്ന് നമ്മള് തന്നെ കൊണ്ടുപോയി കളയണം എന്നുള്ളതാണോ അല്ലാതെ നിങ്ങളായിട്ടൊന്നും ചെയ്ത് തരത്തില്ലേ വേസ്റ്റ് ഇടാനുള്ളതൊന്നും നമുക്കൊരു കുഴിയായിട്ടെടുത്ത് തരികയായിരുന്നേൽ നമുക്ക് തന്നത് അങ്ങ് വേറെ നമ്മള് പുറത്ത് കൊണ്ടുപോയി കളയുന്നതിന് പകരം അതേലോട്ടങ്ങ് ഇട്ടാൽ മതിയല്ലോ അല്ല നമ്മളത് ഡെയിലി ഡെയിലി കൊണ്ടുവന്നു കുഴിയിലോട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനനുസരിച്ചൊരു കുഴി ആ വളവും ഒക്കെ ആകുമല്ലൊ അപ്പോൾ ആ പിന്നെ ഈ പൈപ്പിൻ്റെ കാര്യം കൂടെ ഒന്ന് ആ ഇന്ന് തന്ന ഒരാളേ വിടാവോ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനേ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇന്ന് തന്നെ ഒരാളെ വിടുവായിരുന്നേല് സൗകര്യമായിരുന്നു ഇല്ല മോട്ടറിന് കമ്പ്ലൈൻറ്റില്ല എന്നാണ് തോന്നുന്നത് മോട്ടർ ഇടുമ്പം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളം കയറുന്നില്ല എന്താണ് പ്രശ്നം എന്നറിയത്തില്ല ആ പിന്നെ കിച്ചണിലെ പൈപ്പാണെങ്കിൽ ലീക്ക് ആകുന്നുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞോ അതെ പൈപ്പ് മാറണമെന്നാണ് തോന്നുന്നത് കാരണം ഒത്തിരി വെള്ളം ലീക്കായിട്ട് പോകുന്നുണ്ട് ആ അപ്പം അത് ആ ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാ ക്യാഷ് നമ്മളാണോ കൊടുക്കേണ്ടത് അതോ നിങ്ങള് തന്നെയാണോ കൊടുക്കുന്നത് ഓക്കെ നിങ്ങള് തന്നെ ക്യാഷ് കൊടുക്കുവല്ലേ ഓക്കെ ഓക്കെ ആ ആ